ഇപ്പോൾ നമ്മൾ മതപരമായ ഒരു ഉത്സവം ഇപ്പോൾ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം ഇപ്പോൾ ഹിന്ദു ഹിന്ദു സമൂഹത്തെക്കുറിച്ച് ആസ്പദമാക്കി പറയണ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു വലിയ ഉത്സവം തന്നെയാണ് ഏകദേശം നാ അഞ്ചെട്ട് ദിവസം നീണ്ട് നിൽക്കണ വലിയ ഒരു ഉത്സവമാണ് നമ്മൾ അത്തം അത്തം തൊട്ട് പൂക്കളം ഇട്ട് തുടങ്ങും അത് ഓരോ വീട്ടിലും ഓരോ സ്ഥലങ്ങളിലും പോയി പൂവൊക്കെ പറിച്ച് നല്ല രീതിയിൽ പൂക്കളം ഒക്കെ ഇട്ട് പിന്നെ ഓരോ ദിവസം വ്യത്യസ്തമായിട്ടുള്ള പൂക്കളം ഇടാൻ ശ്രമിക്കുക വേറെ വേറെ വെറൈറ്റി ഉള്ള പൂക്കളമാണ് മെയിനായിട്ട് നമ്മൾ അതാ അതിന് വേണ്ടി വീട്ടിൽ നിന്ന് എല്ലാവരും ഇപ്പം അമ്മമാരായാലും കുട്ടികളായാലും അച്ഛന്മാർ എല്ലാവരും അതിന് വേണ്ടി കൂടെ നിൽക്കും പുറത്ത് പോയിട്ടുള്ളവർ ഇപ്പോൾ ഓണ സമയത്ത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുടുംബക്കാരെല്ലാവരും കൂടി തറവാട്ടിലേക്ക് ഒരുമിച്ച് വരും പിന്നെ തിരുവോണം ഉത്രാട ദിവസം തൊട്ട് അതിൻ്റെ ഉത്രാടത്തിൻ്റെ തലേദിവസം മാതോരു വെക്കും മാതോരു മണ്ണിൽ കുഴച്ചുണ്ടാക്കുന്ന സാധാരണ ഉണ്ടാ അതിൻ്റെ അച്ചിലൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യാറ് അപ്പം അതുപോലെ നമ്മൾ എല്ലാവരും കൂടി അതൊക്കെ ഉണ്ടാക്കി പിറ്റേദിവസം രാവിലെ ഇപ്പോൾ മാതോരു വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം മൂന്നു നേരം അതിന് പൂജ ചെയ്ത് പൂജ ചെയ്യുമ്പോൾ ഓരോ ഓരോ തരം വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്യും ഒരു ദിവസം പഴം ആണെങ്കിൽ പിന്നെ ശർക്കര വരട്ടി അതുപോലെ ഓരോ നേരം ഓരോ ടൈപ്പ് സംഭവം നമ്മൾ അതിന് വെക്കും പിന്നെ ഓണത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യയാണ് മെയിൻ പായസം പപ്പടം പഴം പായസം അങ്ങനെ നല്ല അടിപൊളി സദ്യ കിച്ചടി ഓലൻ അവിയൽ അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് സദ്യ ഓണസദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമ കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന ഒരു സംഭവമാണ് ഓണസദ്യ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതിന് അത് കഴിക്കാൻ പു പു പുറത്തുനിന്ന് പുറം രാജ്യങ്ങളിൽ നിന്ന് അടക്കം ആൾക്കാർ വരാറുണ്ട് അപ്പോൾ പിന്നെ അത് നമ്മൾ ഏകദേശം ഇപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് നല്ല ഉടുപ്പുകൾ എല്ലാദിവസവും തിരുവോണത്തിൻ്റെ അന്ന് ആണെങ്കിൽ നല്ല നല്ല ഉടുപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതേ മാതിരി സദ്യ ഉണ്ടാകും പിന്നെ അവിട്ടത്തിന് അതുപോലെ ചതയം ചതയം പിന്നെ നമ്മുടെ ഓണത്തിൻ്റെ ഫേമസാണ് പൂരം മറ്റേ നമ്മുടെ പൂര നഗരിയായ തൃശൂരുള്ള പുലികളി പുലികളി പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് നമ്മള തൃശൂർ നഗരത്തിൽ കൂടി കുറേ ആൾക്കാർ പുരുഷന്മാരായാലും സ്ത്രീകളായാലും മറ്റേ പുലിയുടെ വേഷം കെട്ടി ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പുലിയുടെ രൂപത്തിൽ ചെറിയ ഒരു താളമേള വാദ്യങ്ങളോടുകൂടി ചെറിയ നടന ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കാണാൻ തന്നെ ഒരു വിസ്മയമാണ് ഓണം എന്ന് പറഞ്ഞാൽ കേരളീയർക്ക് ഒരു ദേശീയ ഉത്സവമെന്ന് തന്നെ പറയാൻ പറ്റും